എനിക്കൊരു ട്രഡീഷണൽ ഹൗസ് വേണമായിരുന്നു ഫ്രൻ ഫ്രണ്ടിനായിരുന്നു

ഒരു പത്ത് ദിവസത്തേക്ക് ആ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഒരു രണ്ടാഴ്ച്ചത്തേക്കുള്ളിൽ വേണം ഉള്ളിൽ മറ്റേ ഉള്ളിൽ മറ്റേ സീനറി ഒക്കെ വരുന്നില്ലേ ഏറ്റവും ഉള്ളിൽ ഓപ്പൺ ആയിട്ടുള്ളത് ആ ആ ആ അത് തന്നെ അത് തന്നെ ഒരു ഓണം ഷൂട്ട് ഒക്കെ വരുന്നുണ്ട്

ആ തറവാട് ഇൽ ഇല്ലം ആണോ ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവുമോ

ഒരു അഞ്ച് പേർ ആ അവിടെത്തന്നെ അക്കോമഡേഷൻ ഉണ്ടാവില്ലേ

ആ ആ ആ അതെ അതെ ബാംഗ്ലൂരിലായിരുന്നു അല്ല വണ്ടിയെല്ലാം എത്തുന്ന സ്ഥലം അല്ലേ എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത്

ആ ഓക്കെ ഓക്കെ ആ

ആ ആ

ആ ആ അതെ ശരിയാണ് മ് ആ വരാം വരാം ഈ ലൊക്കേഷൻ ഒന്ന് അയയ്ക്കണേ